ആ എനിക്ക് നാടൻ കളികളൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾ ചെറുപ്പകാലത്ത് പിള്ളാരെല്ലാരും കൂടെ കൂടി ഇത് കളികളൊക്കെ കളിക്കുമായിരുന്നു അതിനകത്ത് പ്രധാനമായിട്ടും കളിക്കുന്നത് കുട്ടിയും കോലും കളിക്കും അത് കയ്യിൽ ഒരു ചെറിയ കമ്പും ഒരു വലിയ കമ്പുമുണ്ടായിരിക്കും അപ്പം ആ ചെറിയ കമ്പിൽനിന്ന് നമ്മൾ മുറ്റത്ത് ഒരു കുഴി ചെറിയൊരു കുഴിയുണ്ടാക്കിട്ട് ആ കുഴിയുടെ മുകളിൽ ചെറിയ കമ്പ് വെക്കും എന്നിട്ട് ഈ വലിയ കമ്പുകൊണ്ട് അത് തോണ്ടിയെറിയും അപ്പോൾ പിള്ളാർ പോയി ചെന്ന് അത് പിടിച്ചെടുക്കുകയാണെന്ന് ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സ്കോറ് പോകും അവർക്ക് സ്കോറ് കിട്ടും അതേസമയം അവർ പിടിക്കാതെ പോകുകയാണെന്ന് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് സ്കോറ് കിട്ടും രണ്ടാമത് ആ കുട്ടി എടുത്തിട്ട് വലിയ കമ്പുംകൊണ്ട് ഞാൻ അടിച്ചു ദൂരെ പായിപ്പിക്കും അവരെത്തി പിടിച്ചാൽ അവർക്ക് സ്കോറ് കിട്ടും അവർ പിടിച്ചില്ലെന്ന് ഇരുന്നെങ്കിൽ എനിക്ക് സ്കോറ് കിട്ടും അങ്ങനെ ഉള്ള കളികളുണ്ടായിരുന്നു കുട്ടിയും കോലും എന്നുള്ളൊരു കളിയെപ്പറ്റി പിന്നെ കളിക്കുന്നത് അക്ക് കളിക്കും അതായത് മുറ്റത്ത് എട്ടു കളം വരയ്ക്കും സമചതുരത്തിൽ എട്ടു കളം വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പുറകിൽ നിന്നുകൊണ്ട് അക്ക് പുറകോട്ടിടും എന്നിട്ട് കണ്ണു അടച്ചുകൊണ്ട് ഈ രണ്ട് വശത്തെ കളത്തിനകത്തുകൂടി ചവിട്ടി ചവിട്ടി കണ്ണും അടച്ച് നമ്മൾ ലാസ്റ്റ് ചെന്ന് ഈ അക്ക് കിടക്കുന്ന കളത്തിൽ ചെന്ന് അക്ക് ചവിട്ടി എടുക്കണം അന്നേരം സ്കോറ് ലഭിക്കും അങ്ങനെയുള്ള അക്ക് കളികൾ പിന്നെ ഉള്ളത് ഇട്ടൂലി ഇട്ടൂലി അതുപോലെ തന്നെ നമ്മൾ ഒരു സേഫ്റ്റി പിൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറകോട്ടെറിയും എന്നിട്ട് പിന്നെ അത് ചെന്ന് തപ്പി പിടിച്ചെടുക്കുന്നൊരു കളിയാണ് ഇട്ടുകൊള്ളി കളി പിന്നെ കസേരകളി അത് പിന്നെ എന്നാൽ ഒരു നമ്മളിപ്പോൾ പത്തു പേർ കളിക്കുകയാണെന്നുണ്ടെന്നരീതിയിൽ ഒൻപത് കസേരയിടും കസേര റൗണ്ടിലിടും റൗണ്ടിലിട്ടിട്ട് ഈ പത്തു പേരേയും കൂടി അതിന് ചുറ്റും ഓടിക്കും ഓടിച്ചിട്ട് ബെല്ലടിക്കും അപ്പം ബെല്ല് അടി നിൽക്കുന്ന സമയത്ത് ഇവർ റൗണ്ടിലോടി വന്ന് കസേരയിലിരിക്കും അപ്പം ഒരാൾ എത്രയായാലും മിച്ചം വരും ഒമ്പത് പേർക്കേ കസേര കിട്ടത്തുള്ളു അപ്പം ആ ആൾ ഔട്ടാവും വീണ്ടും ഒരു കസേര മാറ്റി ഇട്ടേച്ച് ബാക്കിയുള്ളവർ ഒൻപത് പേരെ ഓടിക്കും അങ്ങനെ ഓരോ റൗണ്ടും ഓടിച്ച് ഓടിച്ച് ഓടിച്ച് ലാസ്റ്റ് വരുന്നയാൾക്ക് പ്രൈസ് കിട്ടും അങ്ങനെയാണ് കസേരകളി പിന്നെ ലെമൺ ഏൻ സ്പൂണ് അപ്പം നമ്മൾ ഒരു സ്പൂൺ നമ്മുടെ ഇങ്ങനെ കടിച്ച് പിടിക്കും അതിനകത്ത് ഒരു നാരങ്ങ വച്ചിട്ട് ഒരു സ്റ്റാർട്ടിങ്ങ് പോയിൻ്റിൽ നിന്ന് ഫിനിഷിങ്ങ് പോയിൻ്റ് വരെ ഒരു നാലഞ്ച് പേരെ നിർത്തി നടന്നു പോവുക അപ്പം ഏറ്റവും മുന്നിൽ നടന്ന് ചെല്ലുന്നവർക്ക് പ്രൈസ് കിട്ടും അങ്ങനെ ലെമൺ ഏൻ സ്പൂണ് പിന്നെ കലം തല്ലി പൊട്ടീര് മുകളിലൊരു കലം കെട്ടി തൂക്കിയിട്ടിട്ട് അതിനകത്ത് പൂക്കളോ മഞ്ഞൾ വെള്ളമോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേച്ച് കയറിൽ കെട്ടിയിങ്ങനെ ആടിക്കും നമ്മൾ കണ്ണ് കെട്ടിയിട്ട് നമ്മുടെ കണ്ണ് കെട്ടും നമ്മുടെ കയ്യിലൊരു കോല് തരും എന്നിട്ട് നമ്മൾ ഈ കോലുംകൊണ്ട് നടന്ന് ഈ കലം ആ തല്ലി പൊട്ടിക്കണം അപ്പോൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു എന്ന രീതിയിൽ നമുക്കൊരു പ്രാവശ്യം അത് കിട്ടത്തുള്ളു അങ്ങനെ കലം തല്ലി പൊട്ടിക്കുന്ന ആളിന് പ്രൈസ് കിട്ടും പലർക്കും പൊട്ടിക്കാൻ സാധിക്കാതെ വരും പക്ഷെ ആരെങ്കിലും ഒരാൾ തല്ലി പൊട്ടിക്കും പൊട്ടിക്കുന്നയാളിന് പ്രൈസ് കിട്ടും പിന്നെ മെഴുകുതിരി മെഴുകുതിരി കത്തിച്ച് ഓട്ടം അതായത് മെഴുകുതിരി കത്തിച്ച് ഇതുപോലെ വായിൽ നമ്മൾ കടിച്ചു പിടിക്കും അത് കെടാതെകൊണ്ട് ഏറ്റവും സ്പീഡിൽ ചെന്ന് ഫിനിഷിങ്ങ് പോയിൻ്റിൽ ചെല്ലുന്നവർക്ക് പ്രൈസ് കിട്ടും അങ്ങനെ ഉള്ള ചെറിയ ചെറിയ നാടൻ കളികളൊക്കെ ഞങ്ങൾ കളിക്കുമായിരുന്നു ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഇന്നും ഞങ്ങളോരോ വർഷവും ഇത് ഓണം വരുമ്പോൾ പിന്നെ ഞങ്ങളുടെ കുടുംബ യോഗങ്ങൾ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളേയും കൊണ്ടൊക്കെ ഇത് കളിപ്പിക്കുന്നുണ്ട് അത് തുടർന്ന് വന്നു കൊണ്ടേയിരിക്കുന്നു